സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അക്രമം പ്രശ്നങ്ങൾ പാ തടയാനായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാകുവായിരിക്കും കാരണം എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല കാരണം സ്പോർട്സുമായിട്ട് ഇതുവരെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല ഞാൻ കായിക മേളയിൽ മികളി പങ്കെടുക്കുന്ന ഒരു വ്യക്തിതന്നെയാണ് പങ്കെടുക്കുന്നു പങ്കെടുക്കുക എന്നതാണ് പ്രധാനം ജയിക്കുന്നോ തോൽക്കുന്നോ എന്നതൊരു പ്രശ്നമല്ല ഇപ്പോൾ അവിടെ വേറിങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറയാനായിട്ട് അവിടുത്തെ ആ സ്പോർട്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടാവും പൊതുവേ ആ വ്യക്തിയോട് ആണ് പോയി പറയുന്നത് പിന്നെ നിയമപരമായിട്ടാരെ നിയമപരമായിട്ട് ചിലപ്പോൾ നടപടികൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ കേസും കാര്യങ്ങളും പോവുകയാണെങ്കിൽ അങ്ങനെ

എന്തെങ്കിലും ഇത് ഉണ്ടാകുവായിരിക്കും തടയാൻ എന്തെങ്കിലും സാധ്യതകൾ കൽപ്പിക്കുകയായിരിക്കും കാ ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഗ്രൗണ്ടീവെച്ച് സംഭവിക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിനെ നിയന്ത്രിക്കുന്ന ഏതേലും വ്യക്തി അവിടെ ഉണ്ടാകും അവരോട് കാര്യം പറഞ്ഞാൽ അവർ പൊതുവേ പ്രശ്നങ്ങളെല്ലാം തടയുകയാണ് ചെയ്യുന്നത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കത്തില്ല